എൻ്റെ മൊബൈൽ ആപ്പ് വഴി ഒരു ഫുഡ് സ്വിഗ്ഗി ആപ്പ് വഴി ഞാൻ ഓഡർ ചെയ്തിരുന്നു എന്നാൽ എനിക്ക് അത് ക്യാൻസൽ ആക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ആദ്യം എൻ്റെ ഫോണിലുള്ള എൻ്റെ മൊബൈലിലുള്ള സ്വിഗ്ഗി ആപ്പിൽ കയറി അതു ഓഡർ ഞാൻ ക്യാൻസൽ ചെയ്തു അതിനു ശേഷം അതു പാ അതിൻ്റെ പണം അതിന് ഓഡർ കാൻസൽ ചെയ്തതിനു പലവിധമായ കാരണങ്ങൾ അവിടെ കാണിക്കുന്നുണ്ടാകും അപ്പോൾ അതിലെ എന്തെങ്കിലും കാരണം നമ ഒന്നെങ്കിൽ നമ്മൾ ലേറ്റ് ആയ ഫുഡ് ലേറ്റ് ആയത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒരു ഫുഡ് നമുക്ക് ആ സമയത്തു അവയ്ലബിൾ ആയതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊടുത്തിട്ട് ഫുഡ് കാൻസലേഷനു കൊടുക്കുക അതിനുശേഷം നമ്മൾ പേയ്മെൻ്റ് റി പേയ്മെൻ്റ് റീഫണ്ട് ആകാനുള്ള റിക്വസ്റ്റുകൾ കൊടുക്കുക അത്രയേ ഉള്ളൂ